ഹലോ നമസ്കാരം ഞാൻ ഇന്നലെ കുളിമുറിയില് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബാത്റൂമിന്റെ മേൽക്കുരയിൽ ഒരു ചോർച്ച കണ്ടെത്തുകയും അതിനു തടയാനുള്ള എന്തൊക്കെ നടപടികളാണ് ഞാൻ സ്വീകരിച്ചതും കാര്യങ്ങൾ നിങ്ങളോടു പറയാനാണു ഞാനിപ്പോള് വിളിച്ചത് അദ്യം തന്നെ ഞാൻ ഇന്നലെ കുളിക്കാൻ പോയപ്പോൾ ആദ്യം ഞാൻ മേൽക്കൂര ശ്രദ്ധിച്ചപ്പോള് വളരെ നല്ല ചോർച്ചയുണ്ടായിരുന്നു അപ്പോള് ആ ചോർച്ച എനിക്ക് ഞാൻ കാണുന്ന എനിക്കു കാണാൻ കഴിയുന്ന സ്ഥലത്തേക്കു ഞാൻ ചോർച്ചയുടെ എന്താണ് കാരണങ്ങളെന്നു കണ്ടെത്തുകയും എനിക്കു കഴിയുന്ന പരമാവധി ഞാൻ ആ ചോർച്ചയുടെ കണ്ടുപിടിക്കാൻ കഴിയുന്നിടത്തൊക്കെ പ്രവർത്തിച്ച് ചോർച്ച തടയുന്നതിലുള്ള മുൻകരുതലുകൾ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് കൂടാതെ സാരമായ പ്രശ്നമാണെങ്കില് ഞാനതു താൽക്കാലികമായിട്ട് എന്തായി വെള്ളം ഒതുക്കുകയും ചെയ്യും എങ്കിലും ഈ ജല അതോറിറ്റിയുമായി എങ്ങനെ ബന്ധപ്പെടാമെന്നു ഞാൻ പറയട്ടെ അവരുടെ ജല അതോറിറ്റിയുടെ ഒരു എമർജൻസി നമ്പറായിട്ടുള്ള എയ്റ്റ് ജീറോ എട്ട് മൂന്ന് പൂജ്യം പൂജ്യം നമ്പറില് വിളിച്ചിട്ട് ഈ പ്രശ്നത്തിൻ്റെയും അതിൻ്റെ കാഠിന്യങ്ങളെക്കുറിച്ചും ചോര്ച്ചയുടെ സ്ഥലം എന്നൊക്കെ ങ്ങക്ക് വേണ്ടി അറിയിക്കാൻ വേണ്ടിയാണ് അപ്പോൾ എൻ്റെ എൻ്റെ സ്ഥലം വരുന്നത് ഇവിടെ ചേളാരി ആറ് ഏഴ് മൂന്ന് പൂജ്യം ആറ് എന്ന പിൻ നമ്പറുള്ള പറയുന്ന സ്ഥലത്താണ് അവിടെ നിങ്ങള് ബന്ധപ്പെട്ടിട്ട് എനിക്കു പ്രശ്നത്തിനു പരിഹാരം കാണണമെന്നു ഞാന് അറിയിക്കുന്നു ഓക്കെ താങ്ക്യൂ